ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ അങ്ങനെ കാണുന്നില്ല പട്ടണങ്ങൾലോട്ട് ചെല്ലുമ്പൊഴെനിക്ക് തോന്നി ബാലവേലക്ക് വേണ്ടി കുട്ടികൾ ഇറങ്ങാറുണ്ട് അതും പട്ടണങ്ങളിലെ കുട്ടികളല്ല വില്ലേജീന്ന് വരുന്ന കുട്ടികളെ ആയിരിക്കും അതും തീരെ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബാലവേലക്ക് കുട്ടികളിറങ്ങുന്നത് പട്ടിണി മൂലമോ അല്ലെ അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാനോക്കെ ആയിരിക്കും ബാലവേല ചെയ്യാറ് കൂടുതലും കുട്ടികൾ ചെല്ലുന്നത് ഞങ്ങളുടെ എന്റഭിപ്രായമനുസരിച്ച് ബാലവേല ട്ടും അനുവദനീയമായിട്ടുള്ളൊരു കാര്യമല്ല കുട്ടികൾ കുട്ടിത്തത്തോട് കൂടി വളരണമെന്നാണ് എന്റെ ചിന്ത ഇതിന് വേണ്ടി നമ്മുടെ ഗെവണ്മെൻറ്റ് ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എങ്ങനെയാണീ കുട്ടികളിതിലേക്ക് വരുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അവരെ വളർത്താനുള്ള സാഹചര്യം ഇല്ല എന്തുകൊണ്ടാണീ കുട്ടികൾ ജോലിക്ക് വരുന്നത് അത് തടയാനായിട്ട് നമ്മുടെ ഗെവണ്മെൻറ്റാദ്യം തീരുമാനം എട്ക്ക്ക ആദ്യം കുട്ടികളേ അവർക്ക് അത്യാവശ്യമായിട്ടെന്തക്കെ ആവശ്യമുണ്ടോ വിദ്യാഭ്യാസം ആഹാരം താമസം വസ്ത്രം ഇതെല്ലാം പാർപ്പിടമിതെല്ലാം കൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗെവൺമെൻറ്റിൽ നിന്ന് നൽകുകയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടുവീ ബാലവേലക്ക് പോവത്തില്ല സാധാരണ ഹോട്ടല്കളിൽ കുട്ടികൾ ജോലിക്ക് നിൽക്കാറുണ്ട് പിന്നെ ഈ തുണി കച്ചവടത്തിന് ഇത് വന്ന് വേടിക്കെന്നു പറഞ്ഞ് ഇങ്ങനെ ഫ്രെണ്ടിൽ കുട്ടികളെ നിർത്താറുണ്ട് അങ്ങനെ പല വിധത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇതെല്ലാം തടഞ്ഞു വെക്കാൻ നമ്മുടെ ഗെവൺമെൻറ്റ് ശ്രദ്ധിക്കണം